ഹലോ ആ സുനിത ചേച്ചി പറ ആ ആ കുറച്ച് തിരക്കിലായിരുന്നു ചേച്ചി

ആ ആ

അതെ എന്തെങ്കിലും ചെയ്യണം ചെയ്താലേ പറ്റുള്ളൂ കാരണം ഇതിപ്പോൾ ക്ഷമിക്കുന്നതിനും ഒരു പരിധിയില്ലേ ഇത് എത്രയെന്നും പറഞ്ഞാണ് രാത്രി ഒന്നും പുറത്തോട്ട് ഇറങ്ങാനും പറ്റില്ല മിനിഞ്ഞാന്ന് തന്നെ രാത്രി കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങി ചേട്ടൻ ഇല്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് ഇറങ്ങിയത് അപ്പോഴത്തേക്ക് ഇവന്മാരെല്ലാം കൂടെ കുടിച്ചിട്ട് ഭയങ്കര ബഹളവും അടിയും വഴക്കൊക്കെ ആയിരുന്നു ആ അതെ ഇതിപ്പോൾ എന്ത് ചെയ്യാൻ എന്തെങ്കിലും ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യണം ചേച്ചി കാരണം ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് ഇത് എന്തായാലും ഇവിടെ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് സംസാരിക്കാൻ പറയാം ഓക്കെ ശരി ചേച്ചി